മലയാള ഭാഷയുടെ ഉപയോഗത്തിൽ പല പല മാറ്റങ്ങൾ നമ്മുടെ കാലക്രമേണ ഉണ്ടായി വരുന്നുണ്ട് നമ്മൾ ഭാഷ ഉപയോഗിക്കുന്ന രീതിയാണെങ്കിൽ നമുക്ക് ആദ്യമൊരു രീതിയെന്നു പറയുമ്പോൾ നമ്മൾ കുറച്ച്കൂടി അച്ചടി ഭാഷയാണ് എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ ഒന്നെികിൽ അച്ചടിഭാഷ അതല്ലെങ്കിൽ കുറച്ചുകൂടി നമ്മൾ പഴയൊരു രീതിയിൽ കുറച്ചുംകൂടി നാടകീയത ഉള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഇപ്പോൽ ഈ ഒരു സാഹചര്യത്തിൽ വരാൻ നേരത്ത് അത് കുറച്ചുംകൂടി ഇതിൻ്റെ മാറ്റങ്ങളെല്ലാം കൊറച്ചുംകൂടി വലിയ രീതിയിൽ നമുക്ക് കാണാൻ ഇടയുണ്ടായി ഇടയുണ്ടായിയെന്നു പറയുമ്പോൾ കുറച്ചുംകൂടി നല്ല രീതിയിൽ ആൾക്കരുടെ അടുത്ത് നോക്കാനും ആൾക്കാരുടെ സംസാരവുമെല്ലാം കേൾക്കാനും നമുക്ക് പറ്റും ഇപ്പോൾ ആൾക്കാർ പറയുന്ന നേരത്ത് എന്തെങ്കിലുമൊരു കാര്യം എന്തെങ്കിലുമൊരു കാര്യം പലടയിത്തും പല പല രീതിയിൽ പല പല ജില്ലകളിലും പല പല രീതിയിലാണ് അതിനെ ഒരു കാര്യങ്ങളെ ഇപ്പോൾ പറയുന്നത് എന്നു പറയുമ്പോൾ ഓരോ ജില്ലകളിൽ വെച്ച് നമുക്ക് അല്ലെങ്കിൽ ഒരു ഒരു ഇപ്പോൾ സ്ലാങ്ങ് രൂപപ്പെട്ടിരിക്കുന്നു അപ്പോൾ സ്ലാങ്ങ് ബേസിലാണ് എല്ലാം ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ മലയാള ഭാഷയുടെ ഉപയോഗത്തിൽ നിന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു മാറ്റങ്ങളാണ് ഇപ്പോൾ ഉണ്ടായി വന്നിരിക്കുന്നത് ഇപ്പോൾ എന്താണ് എല്ലാവർക്കും അവരുടേതായിട്ടുള്ളൊരു ശൈലികളുണ്ട് ഇപ്പോൾ കൊച്ചിയിലാണെങ്കിൽ കൊറച്ചും കൂടി പുതിയ പുതിയ വാക്കുകളൊക്കെ ചേർത്ത് അല്ലെങ്കിൽ തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂർ കുറച്ചുംകൂടി വേറെ രീതിയിൽ എന്തുട്ര ഗെടി എന്നൊക്കെയുള്ള രീതിയിൽ പല പല രീതിയിലും ശൈലിയിലൊക്കെയാണ് ഇപ്പോൾ ആൾക്കാർ സംസാരിക്കുന്നത് അപ്പോൾ അതൊരു നല്ലൊരു കാലക്രമേണയുള്ളൊരു മാറ്റങ്ങളാണ് ഇതേപോലെ ഓൾമോസ്റ്റ് എല്ലാ ജില്ലകൾക്കുമുണ്ട് അച്ചടി ഭാഷയുള്ള ജില്ലകളുമുണ്ട് കോട്ടയം ആലപ്പുഴ മുതലായിട്ടുള്ള ജില്ലകളും ഉണ്ട് അവിടെയൊക്കെയാണ് കുറച്ചുംകൂടി അച്ചടി ഭാഷ സംസാരിക്കുന്നത് എങ്കിലും ഓരോരോ ജില്ലകളിൽ അത് മാറുന്നുണ്ട് പിന്നെ അവിടുത്തെ ഓരോ കായ് ഫലങ്ങൾക്കും ഓരോ സാധനങ്ങൾക്കും പല പല സ്ഥലങ്ങളിൽ പല പേരാണ് അത് കുറച്ചുംകൂടി കൺഫ്യൂഷൻ ഉളവാക്കുന്നൊന്നുമാണ് എന്നാലും അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു വൈവിധ്യമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് അതുകൊണ്ട് ഒരു നല്ലൊരു കാര്യമാണ് അത്